ഞാൻ പുസ്തകങ്ങള് വാങ്ങാറുള്ളത് അമന് ബുക്ക് സ്റ്റോള്സില് നിന്നും അതുപോലെ തന്നെ ഇമേജ് ബുക്ക് സ്റ്റോറില് നിന്നുമാണ് വാങ്ങാറുള്ളത് അവിടെ പുസ്തകങ്ങള് എടുക്കുകയാണെന്ന് വച്ചാല് നമുക്ക് വില കുറഞ്ഞും മറ്റും ഓഫറില് നമുക്ക് പുസ്തകങ്ങള് കിട്ടാറുണ്ട്